കോഴിക്കോട് ജില്ലയിൽ കൂടുതലായിട്ട് കാണുന്ന കൃഷിയെന്ന് പറഞ്ഞാൽ പച്ചക്കറിക്കൃഷി തന്നെയാണ് കൂടുതലായിട്ട് കാർഷിക കാണുന്നത് കാർഷികായിട്ട് പച്ചക്കറി കൃഷികളുണ്ട് പിന്നെ അതേപോലെതന്നെ കന്നുകലികൾ പിന്നെ കോഴി വളർത്തൽ കോഴി വളർത്തൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കോഴിവളർത്തലാണ് കോഴിക്കോട് ജില്ലയിൽ കാണുകയെന്ന് പറഞ്ഞാൽ അതില് ആടിനെ വളർത്തുന്നവരുണ്ട് കന്നുകാലി വളർത്തുന്നവരൊക്കെയുണ്ട് എന്നാലും കൂടുതലായിട്ടുള്ളത് കോഴി വളർത്തലും പിന്നെ പച്ചക്കറി രീതിയില് പച്ചക്കറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർഷിക രീതികളിലൂടെ കൊണ്ടുവന്നതാണ് പച്ചക്കറികൾ പച്ചക്കറികൾ പല ഐറ്റായിട്ട് കർഷകർക്ക് പച്ചക്കറികളെന്നെ ചിലര് വീട്ടില് ഫാമായിട്ട് ഇത് ചെയ്യുന്നവരുണ്ട് ഫാമായിട്ട് മറ്റേ ഇതൊക്കെ ചെയ്യുന്നത് കന്നുകാലി വളർത്തല് അതൊക്കെ നല്ല ഒത്തിരി ഒത്തിരി കൂടുതലായിട്ട് ആ ഏരിയയിൽ കാണുന്നത് അങ്ങനെ ആണ് ചിലർ വീട്ടില് ഇതിൽതന്നെ ആയിട്ട് നടത്തും പച്ചക്കറി അങ്ങനെത്തന്നെ ചെറിയോരു പച്ചക്കറീൻ്റെ ഒരു തോട്ടം തന്നെയായിട്ടെന്നെയാണ് പച്ചക്കറി കൃഷിയായിട്ട് നടത്തുന്നത് അത് വീടുകളുടെ അടുത്തായിട്ട് ആയിരിക്കും ഭിത്തികളൊക്കെ കെട്ടി മറച്ചിട്ട് വേറെ രീതികളൊക്കെ പക്ഷികളും വേറെ മൃഗങ്ങളൊന്നും കേറാത്ത രീതിയിൽത്തന്നെ കെട്ടി ഉറപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാം